ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരത്തി ത്തൊള്ളായിരത്തി എഴുപത്തി എട്ട് ജൂ മെയ് മുപ്പത്തി ഒന്ന് ആയിരത്തി ത്തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഒന്ന് ജൂലൈ പതിനാറ് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാല് രണ്ടായിരത്തി പതിമൂന്ന്